ആ ആ സാർ ഞങ്ങളിവിടെ ഭരണങ്ങാനം പള്ളി ഒന്ന് കാണാന് വേണ്ടിയിട്ട് വന്നതാണെ ഞങ്ങള് മാ അൽഫോൻസാമ്മയെ തൊഴാൻ വേണ്ടിയിട്ട് ആ ആ അവിടെ ഭരണങ്ങാനത്ത് അൽഫോൻസാമ്മയുടെ പള്ളി കണ്ടതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള അമ്പലത്തില് ഞങ്ങളൊന്ന് തൊഴുതിട്ട് ഇറങ്ങിയവരാണ് ഞങ്ങള് പത്ത് പേരുണ്ട് ഞങ്ങൾക്ക് ഇവിടെ അത്ര പരിചയം ഇല്ല അപ്പോൾ ഈ ഒര് ഒരു റെസ്റ്റോറൻറ്റ് അടുത്ത് കണ്ടത് കൊണ്ട് ഞങ്ങള് കയറിയതാണ് ഇവിടെ ഞങ്ങൾക്ക് രാവിലത്തേക്ക് പത്ത് പേർക്ക് ഇപ്പം കഴിക്കാന് പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റ് അവൈലബിൾ ആണോ ഞങ്ങൾ അമ്പലത്തില് വന്നത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് വെജിറ്റേറിയനാണ് വേണ്ടത് എന്തൊക്കെ ഉണ്ട്

ആ ഞങ്ങൾ ഇപ്പോൾ പത്ത് അതെ ഞങ്ങള് പത്ത് പേരുണ്ട് പത്ത് പേർക്ക് അവിടെ നന്നായിട്ട് ഇരുന്ന് കഴിക്കാന് പറ്റുന്ന രീതിയിൽ ഞങ്ങൾക്ക് പത്ത് പേർക്കുള്ള ടേബിൾ അറേഞ്ച് ചെയ്ത് തരുമല്ലോ അല്ലെ ആണല്ലേ അതുപോലെ തന്നെ ഇവിടെ അടുത്ത് എവിടെയെങ്കിലും താമസിക്കാന് പറ്റുന്ന വല്ലതും ഉണ്ടോ ഏരിയ അങ്ങനെ വല്ലതും നിങ്ങളുടെ റെസ്റ്റോറൻറ്റ് കീഴിലുള്ള എന്തേലും ഹോട്ടലുകളോ റൂമ് റെൻറ്റുകളോ അങ്ങനെ എന്തേലും അവിലബിൾ ആണോ അങ്ങനെ ആ അതെ ഞങ്ങള് ഫാമിലിയുണ്ട് കുട്ടികളു അടങ്ങുന്ന ഒര് പത്ത് പേരുടെ ടീമാണുള്ളത് അതുപോലെ തന്നെ ഞങ്ങൾക്ക് വേറെ റൂമില് താമസിക്കുകയാണെങ്കിൽ പോലും വൈ ഉച്ചക്കത്തേക്കും വൈകീട്ടത്തേക്കുമുള്ള ഫുഡ് നിങ്ങളുടെ ഈ ഒര് റെസ്റ്റോറൻറ്റിൽ നിന്ന് അറേഞ്ച് ചെയ്ത് തരാൻ സാധിക്കുമോ ആ ഓക്കെ സാറേ അപ്പം ഞങ്ങള് പത്ത് പേരാണുള്ളത് ഞങ്ങൾക്കെല്ലാം കൃത്യമായിട്ടുള്ള സമയത്ത് കിട്ടണം ബാക്കി ഡീറ്റെയിൽസുകളെല്ലാം അറിയിക്കുന്നതായിരിക്കും ഓക്കെ താങ്ക്യൂ